സമ്പാറാണ് ഞാൻ വിചാരിച്ചിട്ട് വളരെ അധികം ബുദ്ധിമുട്ട് മൂലം ഒഴിവാക്കിയ ഒരു ഭക്ഷണ വിഭവം കാരണം അതിൻ്റെ മർമ്മ പ്രധാനമായ കറിക്കൂട്ടുകൾ ഒന്നും എനിക്ക് വളരെ വ്യക്തമായി അറിയുകയില്ല അതിൻ്റെ ആ അരപ്പുകൾ ആ അരപ്പില് എന്തൊക്കെയാണ് ചേർക്കുക എന്നും എനിക്ക് അത് വ്യക്തമായി അറിയാത്തത് മൂലം ഞാൻ വളരെ സങ്കടകരമായി ഉപേക്ഷിച്ച ഒരു പാചക വിദ്യയാണ് സാമ്പാർ